ആ ഹലോ അമൽ

ആ ഞാൻ എന്നാ ഉണ്ട് വിശേഷമൊക്കെ

സത്യം സത്യം നമുക്കെവിടെയെങ്കിലുമൊന്ന് നമുക്കെവിടെയെങ്കിലൊന്നടിച്ചു പൊളിയ്ക്കാൻ പോകണ്ടേ ശരിക്കും നമുക്ക് പോയേക്കാം നമുക്കാലപ്പുഴക്ക് പോയാലോ ആലപ്പുഴക്ക് പോകാം നമുക്ക് ഇല്ലില്ല വട്ടക്കായലിലൊന്നും ഞാൻ പോയിട്ടില്ല എനിക്കൊന്നു പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് നമുക്കവിടെയൊന്നു പോകണം നമുക്ക് എല്ലാവരുടെയും കൂടെ നമ്മുടെ കൂട്ടുകാരെ എല്ലാം കൂടെക്കൂട്ടി നമുക്കൊന്നടിച്ചു പൊളിക്കാം പോയി വേണ്ട വേണ്ട വേണ്ട കൂട്ടുകാർ മതി കൂട്ടുകാരെല്ലാം കൂടി പോയി നമുക്കൊന്നടിച്ചു പൊളിക്കാം ആ ഹാ ഓക്കെ ഓക്കെ ഓക്കെ അതു മതി കൊഞ്ചും താറാവും ഓ അടിപൊളി അടിപൊളി എന്നാൽ നമുക്ക് പോയേക്കാം ആ ഓക്കെ ഓക്കെ നമുക്ക് പോകണം നമുക്ക് പോകണം സൂപ്പറായിരിക്കും അടിപൊളിയായിരിക്കും അടിപൊളിയായിരിക്കും നമുക്ക് പോകണം നമുക്ക് നമ്മുടെ ഫ്രെണ്ട്സുമെല്ലാം കൂടി കൂട്ടി നമുക്കടിച്ചു പൊളിക്കണം എന്നത്തേക്കാണ് നമുക്ക് പോകുന്നത് നമുക്ക് കൊഞ്ച് റോസ്റ്റുമൊക്കെ കഴിക്കണം പോയി

ഓ ഹോ ഹോ ഓ ഓ ഹോ ഹോ അന്നാ നമുക്കതു നോക്കാം ഓ നമുക്ക് ഓ നമുക്ക് ചെയ്യണം നമുക്ക് പോകണം നമുക്ക് ചെന്നതേതായാലുമടിച്ചു പൊളിക്കണം നമുക്കീ പ്രാവശ്യം പോയി നമ്മൾ നമ്മളങ്ങനെ പൊ നമുക്ക് എല്ലാ വർഷവും നമ്മൾ പോകല്ല എന്നു പറഞ്ഞതു പോലെ നമ്മൾ ഓക്കെ അടിച്ചു പൊളിക്കണം അടിച്ചു പൊളിക്കാൻ അതു തന്നെ നമുക്കടിച്ചു പൊളിയ്ക്കാം നമ്മൾ കൂട്ടുകാരെല്ലാം കൂടിപ്പോയി നമുക്കടിച്ചു പൊളിക്കാം സൂപ്പറായിട്ടൊക്കെ കാ കായലുമൊക്കെ ഒന്നു കറങ്ങി ബോട്ടിങ്ങുമൊക്കെ നടത്തി അങ്ങ് സൂപ്പറായിട്ട് ഓ ഓ ഓ ഹോ ആ കത്താറോക്സിജെ

വൈകീതെടുക്കും ഓ ഹോ ഹോ ഹോ ആ നമുക്ക് പോകണം നമുക്കേതായാലും ഇപ്രാവശ്യം നമുക്ക് അടിച്ചു പൊളിക്കണം പോയി ഉം എന്നാൽ ശരിയെന്നാലോ നമുക്കീ ആഴ്ച് തന്നെ പോയേക്കാം ആ ആ ഓക്കെ ഓക്കെ ഓക്കെ റെഡി ഞാൻ റെഡി ഓക്കെ ഓക്കെ താങ്ക് യൂ താങ്ക് യൂ